ഈ തൃശ്ശൂര്കാരുടെ ഏറ്റവും തനതായ രുചീ എന്ന് പറയുന്നത് കഞ്ഞീം ചമ്മന്തീം കഞ്ഞീന്ന് പറഞ്ഞാൽ നല്ല കുത്തരിച്ചോറ് ആ കുത്തരിയെടുത്ത് നല്ല അസ്സലായി കഴുകി വെള്ളം ഒഴിച്ച് നല്ല പോലെ വേവിച്ച തൊട്ടാൽ അമരുന്ന സാ അമരുന്ന പോലെ ആ ആ പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി റെഡിയാകും പിന്നുള്ളത് നല്ല സൂപ്പർ ചമ്മന്തി ചമ്മന്തിയെന്ന് പറഞ്ഞാൽ നല്ല അസ്സൽ നാളികേരം ചിരവി അതിൻ്റെ കൂട്ടത്തിലേക്ക് പച്ച ഉള്ളി കുഞ്ഞുള്ളി വെളുത്തുള്ളി പിന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു മണം വരും ആ മണം കേട്ടാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പാകം പിന്നെ കളറ് നോക്കുവാണെങ്കിൽ ഒരു ഒരു ഇളം ബ്രൗൺ കളറാകും അങ്ങനെ കളറായി കഴിഞ്ഞാൽ നമ്മളതോഫ് ചെയ്ത് ചൂടാറാൻ വെക്കണം ചൂടാറി കഴിഞ്ഞാൽ അതിലൊരു നുള്ളുപ്പുങ്കൂടെ ചേർത്ത് ഒരു തരി വെള്ളവൊഴിച്ച് അരച്ചെടുത്താൽ കഞ്ഞീം ചമ്മന്തീം റെഡി ഇതിൻ്റെ കൂടെ പപ്പടങ്കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പിന്നെ കഞ്ഞീൽ രസൊഴിച്ച് കഴിക്കുന്നൊരു ശീലവൊണ്ട് തൃശ്ശൂര്കാർക്ക് രസോന്ന് പറയുമ്പോൾ നല്ല അസ്സൽ തക്കാളിയിട്ട് മല്ലിയെലേം രസപ്പൊടീം പിന്നെ നല്ല പുളിയും കുറച്ച് കുരുമുളക് പൊടിയും മുളകുപൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നല്ല സൂപ്പർ ചൂടുള്ള രസം ഈ രസവും കഞ്ഞീലേക്കൊഴിച്ച് കഴിക്കുന്നതും തൃശ്ശൂര്കാർക്ക് ഭയ ഭയങ്കര ഇഷ്ടവൊള്ള കാര്യവാണ് പിന്നെ തൃശ്ശൂര്കാർക്ക് അപ്പോം ഇഷ്ടൂം വെള്ളയപ്പോം ഇഷ്ടൂം ഇഷ്ടമാന്ന് പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളീങ്കൂടെ വേവിച്ച് നാളികേരപ്പാൽ കൂടൊഴിച്ച് ഉണ്ടാക്കുന്ന നല്ല വെളു വെളുത്ത പാലുപോലെയുള്ള ഇഷ്ടു പിന്നെ വെള്ളയപ്പം വെള്ളയപ്പംന്ന് പറയുമ്പം വെള്ളയപ്പത്തിൻ്റെ മാവ് വാങ്ങാങ്കിട്ടും അതല്ലെങ്കിൽ പച്ചരി കുതിർത്ത് വെച്ച് രാവിലെ എടുത്ത് അരക്കുന്നതാണ് വെ അരച്ചുണ്ടാക്കുന്നതാണ് വെള്ളയപ്പം ഈ വെള്ളയപ്പോം ഇഷ്ടൂവാണ് പിന്നീടുള്ള തൃശ്ശൂര്കാർടെ ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണം പിന്നെ പരമ്പരാഗത രുചീന്ന് പറയുമ്പം നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുത്തശ്ശിമാരിണ്ടാക്കിത്തരുന്ന മാമ്പഴക്കൂട്ടാൻ പിന്നെ നല്ല ഇടിച്ചക്കത്തോരൻ അങ്ങനത്തെയക്കെ തൃശ്ശൂര്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ഞാൻ പറയാനുള്ളത് പിന്നേത് രുചി ആയാലും കഴിക്കുന്ന മനസ്സ് നല്ലതാണെങ്കിൽ എല്ലാത്തിനും സ്വാദുണ്ടാവും അത്രന്നെ